പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരം പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് ഇരുപത് നാല് രണ്ടായിരത്തഞ്ച് ഇരുപത്തേഴ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ്